ഞാൻ ബിസ്നെസ്സ് നടത്തുന്നൊരു വ്യക്തിയാണ് പലരീതിയിലും ബിസ്നെസ്സ്കള് പല രീതീയിലും ഞാന് ചെയ്തിട്ടുണ്ട് പഷെ ഇപ്പോൾ കണ്സെഷന് ഫീല്ഡിൽ നമ്മൾ വര്ക്ക് ചെയ്യുകയാണെങ്കിൽ നേരായ രീതിയിൽ ബിസ്നെസ്സ് ചെയ്തിട്ട് അവർക്ക് ഇപ്പോൾ നമുക്ക് ജീവിക്കാന് സാധിക്കില്ല എന്നുവെച്ചാൽ എല്ലാവരും അതിലാഭം കണ്ടിട്ടാണ് ബിസ്നെസ്സ് നടത്തുന്നത് ആത്മാര്ത്ഥമായിട്ട് ബിസ്നെസ്സ് ചെയ്യുന്നവർ ആരും ഇല്ല ഈ ബിസ്നെസ്സ് എങ്ങനെ എങ്കിലും ചെയ്ത് തീര്ത്ത് അടുത്ത വര്ക്ക് ചെയ്യാന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും വര്ക്കിലേക്ക് മുന്നോട്ട് അല്ലാണ്ട് ആത്മാര്ത്ഥമായിട്ട് വര്ക്ക് ചെയ്ത് അതിൽ എല്ലാവരെയും ഉള്ക്കൊള്ളിക്കാനോ അത് നല്ല രീതിയിൽ പേരെടുക്കാൻ ആര് ഇപ്പഴ്ത്തെ കാലത്ത് ആരും ചിന്തിക്കുന്നില്ല അങ്ങനെയൊരു പ്രശ്നം ഇപ്പം ഇണ്ട് പിന്നെ ബിസ്നെസ്സില് ജോലിക്കാരെ നിയന്ത്രിക്കാനും അവരെ അവർക്ക് വേണ്ടത് അവരെ ശ്രദ്ധിക്കാനോ അവരെ ജോലി ചെയ്യുന്നുണ്ടെന്ന് നോക്കാനോ ഒക്കെ നമ്മൾ നിൽക്കുമ്പോൾ അത് അവർക്ക് കൂടുതൽ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ബിസ്നെസ്സ് എങ്ങനെ ലാഭത്തില് ആക്കാന് പറ്റും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കേസ് ആണ് മൊത്തത്തിൽ സാധനങ്ങളുടെ വിലകൾ ഇരുന്ന ഇരിപ്പിൽ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഒരു ബിസ്നെസ്സ് നടത്താന് സാധിക്കില്ല അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ പല ബിസ്നെസ്സും പൊളിഞ്ഞ് പോവാറുണ്ട് എന്നുവെച്ചാൽ ഉദ്ദേശിച്ച രീതിയിലൊന്നും ബിസ്നെസ്സ് നടത്താന് പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ചിലരും ബിസ്നെസ്സ് നിര്ത്തി മുന്നോട്ട് പോയവരുണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാം വേണ്ട ഇനി ഈ ബിസ്നെസ് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ നടത്തുന്നവരുണ്ട് എന്നുവെച്ചാൽ ലാഭം ഇല്ലാതെ ബിസ്നെസ്സ് നിർത്തിയിട്ട് എന്താ കാര്യം എല്ലാവരും ബിസ്നെസ്സ് ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടി ആണല്ലോ ജീവിക്കാന് വേണ്ടിയാണല്ലോ ബിസ്നെസ്സ് ചെയ്യുന്നത് അത് കയ്യില് നിന്ന് നഷ്ടം വരുകയാണെങ്കില് ആരും ബിസ്നെസ്സിന് മുന്നോട്ട് കടന്നുവരാന് സാധിക്കുന്നില്ല